ചിത്ര രചനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ആ നിറഞ്ഞതാണ് ആളുകൾ അതിനെ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടെന്നറിയുന്നതിനു നമ്മുടെ കലയില് മറ്റൊരാൾ എത്ര രസിക്കുന്നുണ്ട് എന്ന് നമ്മളറിയുമ്പോൾ അതാണു നമ്മളെ കൂടുതലും സന്തോഷമാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടാൻ അതിനു തിരിച്ചു നല്ല മറുപടി കൊടുക്കുന്നു നമ്മൾ ആ ചിത്രത്തിലൂടെ അവരെ ക്കുന്നു ചില കാര്യങ്ങൾ ആ ചില കാര്യങ്ങൾ നമുക്കു വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതിനു നമ്മൾ കൂടുതൽ സമയം എടുത്തു അതു മനസ്സിലിരുത്തി നല്ലവണ്ണം വരയ്ക്കണം ചിത്രം വരയ്ക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്നും നമ്മുടെ മനസ്സ് ഏകാന്തമായി നമ്മുടെ മനസ്സിൽ നമ്മളെന്താണു വരയ്ക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് അതു മാത്രമേ മനസ്സില് വരയ്ക്കാൻ പാടുള്ളൂ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിനെ നമ്മൾ ഏതു രീതിയിലാണു വരയ്ക്കാന് ഉദ്ദേശിക്കുന്നത് അത് അതേ രീതിയിൽ തന്നെയായിരിക്കണം നമ്മള് വരയും മുന്നോട്ടു പോകേണ്ടത് മറ്റുള്ള ചിന്തകള് ഒന്നുമില്ലാതെ നമ്മളതിനു നല്ല രീതിയിൽ വരച്ചു അതിന് ഒരു രൂപകൽപ്പന എടുത്തുകൊണ്ട് ആ ചിത്രം നമ്മൾ മുന്നോട്ടു കൊണ്ടുവരിക ആ ചിത്രം മുന്നോട്ടു വരുമ്പോൾ അതു കാണുന്ന ജനങ്ങൾ അതിനു കയ്യടിക്കുകയും പ്രോത്സാഹനം തരികയും ചെയ്യുന്നു